ഞാൻ ശരിക്കൊരു വസ്ത്രം തയിക്കാമെന്നു പറഞ്ഞാൽ ഒരിച്ചവരെ ചലഞ്ചിങ്ങായിട്ടേറ്റെടുത്തതിന്റെ മകള്ക്കൊരു പട്ടു പാവാട തയിക്കാനായിരുന്നു ഞാനിന്നേവരെ തയ്ച്ചിട്ടൊന്നും ഇല്ല അപ്പം നമ്മൾ യൂട്യുബിലൊക്കെ നോക്കി ഓരോരുത്തർ പറയുന്ന അനുസരിച്ച് തുണി കട്ട് ചെയ്ത് രണ്ട് ദിവസമേ ഉള്ളായിരുന്നു രണ്ടു ദിവസം ആ അവൾ വാശി പിടിച്ചു കരഞ്ഞപ്പം ആ പട്ടു പാവാട തയിക്കാനാണ് ഞാനുദേശിച്ചത് അങ്ങനെ യൂട്യൂബ് വഴി കണ്ട് പഴയ വീട്ടിലിരുന്നൊരു സാരി ഉപയോഗിച്ചാണ് ഞാനാ പട്ടുപാവാട തയ്ച്ചു കൊടുത്തത് അതിൽ എനിക്കേറ്റവും അതിന്റെ പടി വെച്ചു നമുക്ക് സ്റ്റിച്ചിങ്ങൊന്നും കാര്യമായിട്ടറിയത്തില്ലാത്തതു കൊണ്ടത് തയ്യലൊക്കെ വൃത്തികേടല്ലാത്ത രീതിയിൽ ശരിയായ രീതി തയ്ക്കണമായിരുന്നു അതാരെന്നെനിക്കേറ്റവും വെള്ളി വെള്ളി നേരം ഞാന് പാകം ബാക്കി അതൊക്കെ കുഴപ്പമില്ലാതെ കാര്യമായിട്ട് ബുദ്ധം ഇല്ലാതെ അത്യാവശ്യം നല്ല രീതിയിൽത്തന്നെ തയ്ച്ചു അത് എന്റെ മോൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു അവളത് ഓണം സെലിബ്രേഷന് ഓണം സെലിബ്രേഷന് അവൾക്കാനുവേഴ്സറിക്കായിട്ട് ഒരു ഡാന്സിനു വേണ്ടിയായിരുന്നു അവളത്ര ഇഷ്ടത്തോടെയാണ് അതങ്ങിട്ടു കൊണ്ടു പോയത്